നിങ്ങളുടെ അവിടുന്ന് ഞാനൊരു ബാഗ് മേടിച്ചിരുന്നു മുൻപേ ഒരു ഒരു ബാഗ് തന്നെ അറുനൂറ്റി അമ്പതോളം എഴുന്നൂറ് രൂപയുടെ ബാഗായിരുന്നു ഞാൻ കഴിഞ്ഞ വട്ടം മേടിച്ചിരുന്നത് ഇപ്രാവശ്യം അതുപോലെതന്നെ അത് കുറെ മുൻപെ മേടിച്ചോരു ബാഗാണ് ആ ഓർമയിലാണ് നിങ്ങളുടെ കട പരതി കണ്ടുപിടിച്ച് അവിടുന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചത് ങേ അപ്പം ഞാൻ പുതിയൊരു ബാഗ് അറുന്നൂറ്റിഅമ്പത് രൂപക്ക് ഞാന് ഒര് ബാഗ് ഞാൻ മേടിച്ചു പക്ഷെ ഇപ്പം വാങ്ങിയപ്പം വളരെ മോശം ആയിട്ടുള്ള ഒരു അനുഭവം ആണ് എനിക്കുണ്ടായിട്ടുള്ളത് അത്രയും വിലകൊടുത്തൊരു ബാഗ് മേടിച്ചപ്പളത്തേക്ക് മോശമായിട്ടൊരു ബാഗ് അത് അതിൻ്റെ തുണി ഇങ്ങനെ കീറിപ്പറിഞ്ഞത് നല്ല നല്ല തുണി നല്ല തുണി പോലും അല്ല അതിൻ്റെ ഒരുപാട് ഭംഗി കൂട്ടാനൊക്കെ എന്തൊക്കെയൊ അതില് വച്ച് പിടിപ്പിച്ചിരിക്കുന്ന് അതൊന്നും ശെരിക്കും ഒര് രസമൊന്നും ഇല്ല അതില് അറുന്നൂറ്റിഅമ്പത് രൂപ എൻ്റെ വെള്ളത്തിലായെന്ന് മാത്രം നിങ്ങള് നിങ്ങളുടെ ബാഗ് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വട്ടം മേടിച്ചത് അത്ര നല്ല ഒരു ബാഗായിരുന്നു സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊരു അവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബാഗ് തന്നെയായിരുന്നു അത് പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ എന്ത് എന്ത് എന്ത് ബാഗാണ് അത് ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ പാടുണ്ടോ ഇത്രയും ഒരു വട്ടം ആദ്യത്തെ വട്ടം നല്ല രീതില്നിങ്ങള് കസ്റ്റ് ഒരു ഓരോ ആൾക്കാരെ നോക്കിയും കണ്ടും സാധനങ്ങള് കൊടുത്തയയ്ക്കുമ്പോൾ രണ്ടാമത്തെ വട്ടം ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമ്പം വളരെ മോശമാണ് നമ്മള് ഇനി ഇപ്പ മറ്റുള്ളവരോട് എന്താ സ്വാഭാവികം ആയിട്ട് പറയുക നിങ്ങളുടെ സാധനങ്ങള് കൊള്ളില്ല നിങ്ങളുടെ സാധനങ്ങൾ വാങ്ങിയാൽ നല്ലതല്ല എന്നല്ലേ പറയുകയുള്ളു അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു വീഴ്ച തന്നെയാണ് അത് എന്ത് കൊണ്ടാണ് എങ്ങനെ എനിക്ക് ഇപ്പോളും മനസിലാവുന്നില്ല അറുന്നൂറ്റിഅമ്പത് രൂപ വെള്ളത്തിലായി എന്ന് അല്ലാണ്ട് നമ്മള് ഇത്ര ആഗ്രഹിച്ച് ഒരു നല്ലൊരു ബാഗ് മേടിച്ച് അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഒര് ബാഗ് മേടിച്ച നമ്മള് കാശൊക്കെ ചുമ്മാ ഉണ്ടാകുന്നത് അല്ലല്ലോ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് തന്നെ ഞങ്ങളിതൊക്കെ വാങ്ങുന്നത് നിങ്ങളുടെ ഭാഗത്ത് ഇത്തരം ഒര് വീഴ്ച ഞാൻ ഞാൻ പ്രതിഷിച്ചിട്ടില്ല എ നല്ലൊരു കാണാൻ വാങ്ങുമ്പോൾ ഓൺലൈനിൽ കാണുമ്പോൾ നല്ലൊരു ബാഗായിരുന്നത് പക്ഷെ വാങ്ങി വരുമ്പളാണ് നമുക്ക് അതിൻറെ ഒരിത് മനസ്സിലായത് ഇത് മ ഇത് ഞാൻ ആയതുകൊണ്ട് ഇത്ര മാന്യമായി സംസാരിക്കുന്നത് പക്ഷെ വേറൊരു ആളാണെങ്കിൽ നമുക്ക് ഈ മാന്യത പ്രതിഷിക്കാൻ പറ്റില്ല വളരെ മോശായിട്ടുള്ളൊരു ബാഗ് ഇത്രയും കാശ് കൊടുത്തിട്ട് ഇത്ര മോശായിട്ടുള്ളൊരു ബാഗ് കിട്ടുമ്പോൾ വളരെ സങ്കടമാണ് കെട്ടോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ ഇതെങ്ങനെ ഇപ്പം തിരിച്ചുതരുന്നത് എങ്ങനെ തിരിച്ചുതരുന്നത് എനിക്ക് കാശ് എന്തായാലും തിരിച്ചു വേണം ഈ ബാഗ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല കാശ് എന്തായാലും എനിക്ക് തിരിച്ചുവേണം